നമ്മുടെ സംസ്ഥാനത്തെന്ന് വെച്ചാല് മലയാള ഭാഷ തന്നെയാണ് പ്രാധാന്യം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലയാള ഭാഷയ്ക്ക് ഇപ്പം നമ്മള് ഒരു കൂട്ടത്തില് നിന്നിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുക ആണെന്ന് വിചാരിക്കുക ഇംഗ്ലീഷ് ഹിന്ദി അപ്പം പഴയ ആൾക്കാർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും വലിയ വശം ഉണ്ടാവില്ല അപ്പം നമ്മള് ആ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മള് അവരുടെ അവരോട് വേണമെങ്കിൽ അവരുടെ ഭാഷയാണ് അവരോട് ഇപ്പം സംസാരിക്കുമ്പം നമ്മള് ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ സംസാരിച്ചിട്ടുടെങ്കില് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മള് അവരോട് അവർക്ക് താല്പര്യം ഉള്ള വിഷയം നമ്മള് സംസാരിക്കാൻ നമുക്ക് മലയാളം അറിയാം അവർക്കും മലയാളം അറിയാം അപ്പോൾ പിന്നെ മലയാളത്തിൽ സംസാരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ അമ്മതന്നെയാണ് മാതൃഭാഷയാണ് അപ്പം നമ്മള് അതിൽ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ അതാണെങ്കില് നമ്മളിപ്പം പുതുതലമുറക്ക് അതെന്തായാലും കൈവിട്ട് പോകും ഇങ്ങനെ മോശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷയാണ് ഇപ്പം പ്രാധാന്യമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മള് പല പലതരം പഴയ തലമുറക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ മലയാള ഭാഷ ഉപയോഗിക്കുക അപ്പോൾ പുതുതലമുറക്ക് അത് ഉപകരിക്കപ്പെടും